ഞാൻ പാചകം ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിയില്ല എന്ന് തോന്നിക്കഴിഞ്ഞ ഞാൻ അടുത്ത് പിന്നെ വേറൊരു കുക്കുണ്ട് അവരെ വിളിച്ചിട്ട് എല്ലാ പിന്നെ എന്തൊക്കെയാണ് എന്തൊക്കെ ചേർക്കണം എങ്ങനെ എടുക്കണം എത്ര കിലോ അരി എത്ര ഇത്ര പിള്ളേർക്ക് ഇത്ര കിലോ അരി ഉപയോഗിക്കണം എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയാൽ ഞാൻ യൂട്യൂബ് ഉപയോഗിക്കലില്ല ഞാൻ എല്ലാം വിളിച്ച് ഫോണിൽക്കൂടി ചോദിച്ചതിനു ശേഷം എന്തൊക്കെയാണെന്നൊക്കെയുള്ള നോക്കി അങ്ങനെ പഠിക്കുകയാണ് ചെയ്യുന്നത് അല്ലാണ്ടത് നമ്മൾ എല്ലാം യൂട്യൂബ് ഇപ്പോഴെല്ലാ കാര്യങ്ങളും പാചകം ചെയ്യുന്നതാണെങ്കിലും നമ്മൾ ഫോണിൽക്കൂടി എല്ലാം നമുക്കൊന്ന് അടിച്ചു കൊടുത്താൽ എല്ലാം എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാം സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാം അവിയൽ എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ അവര് നന്നായിട്ടുതന്നെ പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ നമ്മളതൊന്നും ആരോടും ചോദിച്ച് അങ്ങനെ യൂട്യൂബ് അടിച്ചുകൊടുക്കേണ്ടൊരു സമയം നമ്മൾ അടിച്ച് നോക്കലില്ല കാരണം ഫോണായിട്ട് നമ്മൾ നമ്മൾ ആൾക്കാരെ വിളിച്ച് എന്തെങ്കിലും നമുക്കറിയാത്തത് അറിയാത്തതെന്നു വച്ചാൽ നമുക്ക് സാമ്പാറും ചോറും അവിയലും പച്ചടി അങ്ങനത്തെ അല്ലാത്ത വേറെയെന്തെങ്കിലും കാര്യങ്ങളറിയില്ലെങ്കിൽ ഞാൻ വിളിച്ച് ചോദിച്ചിട്ട് ഞാനത് മനസ്സിൽക്കുറിച്ചിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നന്നത്